ആ ചേട്ടാ എനിക്ക് കുറച്ച് ഫർണിച്ചറ് കൂടെ വേണമായിരുന്നല്ലോ ആ നമുക്ക് വേണ്ടുന്നത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റങ്ങളും നമുക്ക് വേണം അത് നമുക്ക് ആ അത് ആദ്യം ആദ്യം നമുക്ക് കട്ടിൽ ഒരു ഡബിൾ കോട്ട് കട്ടിൽ ഡൈനിങ് ടേബിള് വേണം അതേപോലെത്തന്നെ ഡൈനിങ് ടേബിൾന് കസേരകൾ കസേ ആ ആ പിന്നെ നമുക്ക് അതേപോലെത്തന്നെ ഈ ഫർണിച്ചറകളുടെയായിട്ട് ഈ അലമാരി നല്ല തടി തേക്കിൻ്റെ അലമാരി ഉണ്ടോ നല്ല അത് ഏതൊക്കെ ഏതൊക്കെ ഏതൊക്കെ തടിയുടെയാ ഉള്ളത്

അപ്പോൾ ഈട്ടിയുടെ ഈട്ടിയുടെ ഈട്ടിയിടെ ഒക്കെ ആവുമ്പോൾ ഈ ഡബിൾ കോട്ടൊക്കെ എന്നാ റേറ്റ് എന്നാ ഒരു റേഞ്ച് വരുന്നതാണ് ആ പതിനഞ്ച് പതിനഞ്ച് രൂപ ആ ആ അതേപോലെത്തന്നെ ആ ഈ ഡിസ് ഈ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വിലയാണോ ഇത് അതോ ഇതിനേക്കാൾ ഇതിന് ആ ഇപ്പം ഡൈനിങ് ഇപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഈ ഈ ഈട്ടിയുടെ തന്നെയാകുമ്പം നമുക്ക് ഡൈനിംഗ്ങ് ടേബിള് ആകുമ്പോഴത്തേക്ക് ഒരു എട്ട് കസേരയായിട്ടുള്ള ഡൈനിങ് ടേബിള് എന്നാ എന്നാ റേറ്റ് വരുന്നുണ്ട് ആ ആ ആറ് രൂപ വരും അല്ലേ ആ കാരണം നമുക്ക് ഈ റെഡിമെയ്ഡ് ആ അതുപോലെത്തന്നെ ഈ റെഡിമെയ്ഡ് ഷോക്കേയ്സ് ഉണ്ടോ നിങ്ങളുടെ കസ്റ്റഡിയിൽ റെഡിമെയ്ഡ് ഷോക്കെയ്സ് ആ അതിപ്പം നിങ്ങൾ ഈ അത് അതിൻ്റെ ഈ ഷോക്കേസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ക്വയർ ഫീറ്റാണോ അതോ ഈ തടിയടെ അളവിൻ്റെ തടിയുടെ അതിന്റെ അനുസരിച്ച് ആണോ സ്ക്വയർ അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന എന്നാ എന്നാ റേറ്റ് വരുന്നുണ്ടോ ഒരു സ്ക്വയർ ഫീറ്റ് മ് ആ അപ്പം നമുക്ക് ഇത് അതുപോലെത്തന്നെ ദിവാൻ കോട്ട് ഉണ്ടോ ദിവാൻ കോട്ട് നിങ്ങളുടെ ദിവാൻ കോട്ട് ഈട്ടിയുടെ തന്നെ ഇത് ഞാൻ കോട്ടയത്തുനിന്നാ വിളിക്കുന്നത് കോട്ടയത്തുനിന്ന് അതേപോലെത്തന്നെ നമുക്ക് ഈ സെറ്റ് വേണമായിരുന്നു അത് ഈട്ടിയുടെ തന്നെ വേണമായിരുന്നു സെറ്റ് ഒരു സെറ്റ് സെറ്റ് വേണം അതേപോലെത്തന്നെ സെറ്റിയോട് കൂടി ഒരു രണ്ട് കസേര കസേര വേണം അത് നമുക്ക് പഴയ മോഡലൊന്നും അല്ല പഴയ മോഡല പുതിയ മോഡലാണ് നമുക്ക് ആ ആ അപ്പം നിങ്ങളുടെ കടകൾ എവിടെയൊക്കെയാ ഉള്ളത് ഉണ്ടല്ലേ മ് അപ്പം നമുക്ക് ആ അപ്പം നിങ്ങൾ നമ്മളിപ്പോൾ സാധനം വന്ന് കണ്ട് ഓർഡറ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സാധനം വീട്ടിലെത്തിച്ച് എല്ലാം എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ